വായനയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓണ്ലൈൻ ആയിട്ട് നമ്മൾ വായനയേക്കാളുപരി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്രാര്ത്ഥനയെ സംബന്ധിച്ചും മറ്റുമുള്ള ചാനല്കൾ അത് അത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് അതുപോലെ ബൈബിളിനെ സംബന്ധിച്ചായാലും മറ്റു പൊതുവായിട്ടുള്ള ചില അറിവുകളെ സംബന്ധിച്ചുള്ള വായനകളൊക്കെ നമ്മൾ ഫോണ് വഴി ആയിട്ട് ഓണ്ലൈൻ ആയിട്ടൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെത്തന്നെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചുള്ള അര്ത്ഥങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓണ്ലൈന് വഴി ആയിട്ട് ചെയ്യുന്നുണ്ട് അതുവളരെ ഉപകാരമാണ് ഇപ്പം പ്രത്യേകിച്ച് ഒരു വാക്ക് ഉണ്ട് അതിന്റെ അര്ത്ഥതലങ്ങൾ എന്തൊക്കെ എന്നൊക്കെ പലപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഓണ്ലൈന് സംവിധാനം ഓണ്ലൈൻൽ ഉള്ള ആപ്പ്കൾ വഴിയായിട്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്തുകയാണ് ഉപയോഗപ്പെടുത്തണ്ടായത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ശരിയായ അറിവില്ല പക്ഷെ ഗൂഗിള് പോലുള്ള സംവിധാനങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഒരുപാട് അറിവുകൾ പകര്ന്നുനല്കുന്നു എന്നുകണ്ടപ്പോഴ് ആ ഉള്ള മേഖലകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇക്കുന്നുണ്ട് മറ്റ് കുഞ്ഞുങ്ങളായാലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴ് ഈ ഓണ്ലൈനിലുള്ള ആപ്പുകളിലൂടെ അതിന്റെ അര്ത്ഥങ്ങൾ കണ്ടെത്താനും അതിന്റെ ശരിയായ മേഖലകളൊക്കെ അവര്ക്ക് പറഞ്ഞുകൊടുക്കുവാനുവൊക്കെ ഈ മേഖല ഒരുപാട് നമുക്ക് സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആത്മീയ മേഖലയിലെ കാര്യങ്ങളായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വരുന്നു